ആ കംപ്യുട്ടറിൻ്റെ ഷോറൂം അല്ലേ

അപ്പം അത് റെഡിയാക്കാനായിരുന്നു

ആ ആ ഏത്

തുടങ്ങിയിട്ട് ഇത് രണ്ട് ദിവസമായി ഇത് അതുവരെ സ്മൂത്തായിരുന്നു ഹലോ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ലാഗ് തുടങ്ങിയിട്ട് ആ അതുവരെ സ്മൂത്തായിരുന്നു

അല്ല അല്ല ഇപ്പം ഓണാക്കുമ്പോൾ അങ്ങനെ അല്ല ഓണാക്കുമ്പോൾ നല്ല ലാഗാണ് ഓണാകുമ്പത്തേനും തന്നെ ഒരു മണിക്കൂർ എടുക്കുന്നുണ്ട് ആ ആ അപ്പോൾ അത് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഷോറൂമിൽ വരേണ്ടി വരുവോ നന്നാക്കാൻ ആ ആ

ആ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി ഞങ്ങൾ ഇല്ല ഇല്ല റെഡി ആകുന്നില്ല ആ അത് ഞാൻ ഇപ്പം എൻ്റെ ലാപ്പ് ഒന്ന് ചേഞ്ച് ചെയ്താലൊന്ന് ആലോചിക്കുകയാണ് വേറെ ഇതെങ്കില് ലാപ്പ് അവിടെ ഉണ്ടോ ഷോറൂമിൽ ആ ആ എത്രയാണ് മിനിമം സ്റ്റാർട്ടിംഗ് എത്രയാണ്

ആ ആ ആ മിനിമം പ്രൈസ് എത്രയാണ് വരിക സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരിക മിനിമം ആ ആ ഇരുപത് രൂപ അല്ലേ ഇ എം ഐ ക്ക് അല്ലേ ആ ഇ എം ഐ ഒക്കെ ഉണ്ടോ

ഇ എം ഐ ഇ എം ഐ

ആ ഓക്കെ ഓക്കെ എന്നാ ഓക്കെ കേട്ടോ ഓക്കെ താങ്ക്യൂ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ